പ്രാദേശിക കലാകാരന്മാരും കരകൗശല വിദഗ്ധരും നിങ്ങളുടെ പ്രദേശത്തെ ആളുകൾക്ക് എന്തെങ്കിലും ക്യാമ്പുകളോ പരിശീലന പരിപാടികൾ നടത്താറുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ പള്ളി ഇവിടെ അടുത്തൊരു പള്ളി മാർത്തോമയുടെ പള്ളിയുണ്ട് പള്ളിയുടെ ഭാഗമായിട്ട് തന്നെ ഒരു ആശ്രമം ഉണ്ട് ആ ആശ്രമം ചില വർഷങ്ങളായിട്ട് സ് ഒരു സിസ്റ്റർ ഉണ്ട് സിസ്റ്റർ തയ്യൽ തയ്യൽ പഠിപ്പിക്കുന്നുണ്ട് വളരെ തുച്ഛമായ പിന്നെ നിരക്കിലാണ് ഫീസിലാണ് ഫീസ് ഈടാക്കിയാണ് സി സ്ത്രീകളെ തയ്യൽ പഠിപ്പിക്കുന്നത് സ്ത്രീകൾ തന്നെ അല്ല പുരുഷന്മാരേയും പഠിപ്പിക്കുന്നുണ്ട് എൻ്റെ വളരെ കാലത്തെ ആഗ്രഹമായിരുന്നു തയ്യല് പഠിക്കുക എന്നുള്ളത് അപ്പോൾ സ്വന്തമായിട്ട് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ജോലിയായിട്ടാണ് ഞാൻ തയ്യലിനെ കാണുന്നത് അത് തന്നെയും അല്ല വീട്ടിൽ കുഞ്ഞുങ്ങളൊക്കെ ഉള്ളതാണ് വേറെ ആരെയും വേറെ ആരും ഇല്ലാത്തതായാൽ കുഞ്ഞുങ്ങളെ നോക്കാനും ഒക്കെ ആരും ഇല്ലാത്തതിനാലും വീട്ടിലിരുന്ന് സ്വയം തൊഴിലായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നാലോചിച്ചപ്പോൾ തയ്യൽ പഠിക്കണമെന്ന ആഗ്രഹമാണ് വളരെ നാളായിട്ടും മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെയാണ് ഞാനീ സിസ്റ്ററിൻ്റെ ഈ ആശ്രമത്തെ കുറിച്ച് ഇവിടുത്തെ പഠിപ്പിക്കുന്ന ഇതിനെ കുറിച്ചുമൊക്കെ അറിയാൻ ഇടയായത് മാത്രമല്ല അങ്ങനെ വന്ന് ഒരു വർഷമായി ഞാൻ ഇവിടെ പഠിക്കാൻ വന്നിട്ട് അങ്ങനെ ഇവിടെ വന്ന് തിരക്കുകയും വളരെ തുച്ഛമായ ഫീസിലാണ് ഇവിടുത്തെ സിസ്റ്റർ തയ്യൽ പഠിപ്പിക്കുന്നത് ഏകദേശം പത്തിരുപത് പേരിൽ കൂടുതലുണ്ട് പഠിച്ച് കഴിയുമ്പോൾ സർട്ടിഫിക്കറ്റ് തരികയും ഒക്കെ ചെയ്യാറുണ്ട് പരീക്ഷകളും നടത്താറുണ്ട് വളരെ നല്ല രീതിയിലും നല്ല മികച്ച രീതിയിലാണ് പഠിപ്പിക്കുന്നത് നമുക്ക് മനസ്സിലാവാത്ത കാര്യങ്ങൾ വളരെ നല്ല രീതിയിലാണ് വീണ്ടും വീണ്ടും കൊച്ചമ്മ പറഞ്ഞ് തരാറുള്ളത് മാത്രമല്ല ഈ തയ്യൽ മേഖല മാത്രമല്ല വിവിധതര കാ കലാകാ കരകൗശല രീതിയിൽ നമ്മുടെ നാട്ടിൽ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട് ഈ അടുത്ത കാലത്ത് തന്നെ കൈകൊട്ടി കളിയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള നിരവധി പ്രോഗ്രാമുകളൊക്കെ നട നടക്കാറുണ്ടായിരുന്നു കുടുംബശ്രീയുടെ ഭാഗമായിട്ട്